ഹലോ ഇത് കോങ്ങാട് കെ എസ് ഇ ബി ഓഫീസല്ലേ സർ എൻ്റെ പേര് അമൃത ഞാൻ മഞ്ചേരിക്കാവ് അമ്പലത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട് ഒരു പഴയ വീടാണ് ഇപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ വയറിങ്ങ് ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു എലക്ട്രീഷ്യനെ കണ്ടു എക്സ്പീരിയൻസുള്ള ഒരു എലക്ട്രീഷ്യനെ കണ്ട് ചോദിച്ച സമയത്ത് അതിനായിട്ട് നല്ലൊരു ചിലവ് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു വീടിൻ്റെ മുഴുവൻ എലക്ട്രിക്ക് പണികൾ ചെയ്യുന്നതിനായിട്ട് എടുക്കുന്ന ചിലവിൻ്റെ ഒരു മുപ്പത് മുതൽ നാൽപത് ശതമാനത്തിൻ്റെ ഇടയിൽ ചിലവ് വരുന്നത് കേബിൾ വയറിന് മാത്രമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും ഉള്ളൊരു എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പുതുക്കി പണിയുന്നതിനായിട്ട് വരുന്നത് അപ്പോൾ ഇതിനായിട്ട് സർക്കാർ വകയുള്ള ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ ഊർജ്ജ കാര്യക്ഷമമായ ഭവനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ സർക്കാർ പദ്ധതികളോ അല്ലെങ്കിൽ സബ്സിഡികളോ ഉണ്ടോയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് സർ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഈ പദ്ധതികൾക്ക് ലഭിക്കുന്നതിനുവേണ്ടിയിട്ട് അക്ഷയയിലാണോ കൊടുക്കേണ്ടത് അതോ കെ എസ് ഇ ഓഫീസിലേക്ക് നേരിട്ടാണോ വരേണ്ടത് എന്തൊക്കെ പ്രൂഫുകളാണ് സാർ നമ്മൾ ഇതിനായിട്ട് കയ്യിൽ വയ്ക്കേണ്ടത് നമ്മളുടെ മാത്രം കൊണ്ടുവന്നാൽ മതിയോ അതോ വീട്ടിലുള്ളവരുടേയും കൊണ്ടുവരണോ